ചിത്രം വരച്ച് തുടങ്ങുന്നവരോടാണെങ്കിലും തന്റെ കഴിവുകൾ മെച്ചപ്പെടുത്തണം എന്നു ആഗ്രഹിക്കുന്നവരോടാണെങ്കിലും എനിക്ക് പറയാനുള്ളത് ഒറ്റ കാര്യമാണ് ഏതൊരാളാണെങ്കിലും ഇപ്പം ഒരു പൂച്ചേനെ ആദ്യമായിട്ട് വരയ്ക്കാൻ തുടങ്ങുകയാണ് അല്ലെങ്കിൽ ഒരു ചിത്രം ആദ്യമായിട്ട് വരയ്ക്കാൻ തുടങ്ങുകയാണ് അങ്ങനെ തുടങ്ങുമ്പോൾ നിങ്ങൾ ചെയ്യുന്നതെല്ലാം പെർഫക്ട് ആയിട്ട് വരണം എന്നില്ല ഇനിയിപ്പം നിങ്ങൾ എത്രമാത്രം ശ്രമിച്ചു നിങ്ങൾ ഒരു സാധനം വരയ്ക്കാൻ വേണ്ടി നിങ്ങൾക്ക് പറ്റുന്നതുപോലെ മാക്സിമം ശ്രമിച്ചു എന്നിട്ടും അതൊരു വരച്ചു കഴിയുമ്പോൾ നിങ്ങളുദ്ദേശിച്ചൊരു രൂപം അതിന് കിട്ടിയില്ല ഇല്ലെങ്കിലും നിങ്ങളിപ്പോൾ ആദ്യമായിട്ട് ഒരു പൂച്ചേനെ വരക്കാൻ ശ്രമിച്ചു പക്ഷേ നിങ്ങൾ പൂച്ചേനെ വരച്ചു കഴിയുമ്പോൾ നിങ്ങൾക്കതിനെ ഒരു പൂച്ചേന്റെ രൂപമല്ല അതിൽ വേറെ എന്തോ സാധനത്തെ പോലെയാണ് തോന്നുന്നത് ഇല്ലെങ്കിൽ അതു പൂച്ചയായിട്ടോ അല്ലെങ്കിലൊരു പട്ടിയായിട്ടോ ഒന്നും തോന്നുന്നില്ല എങ്കിൽപ്പോലും നിങ്ങളവിടെ നിരാശനാവാണ്ട് നിങ്ങൾ മുന്നോട്ട് തന്നെ പോവുക ആ ഒരു ഫെയിലിയർ അവിടെ ഉണ്ടാകുമ്പോൾ ഇതെനിക്ക് പറ്റിയതല്ല എനിക്ക് അങ്ങനൊരു കഴിവില്ലായെന്നു വിചാരിച്ച് നിരാശനാകാണ്ട് എനിക്കിത് പറ്റും അല്ലെങ്കിൽ എന്നെക്കൊണ്ടിത് സാധിക്കും ഞാനതിന് വേണ്ടിയിട്ട് ഹാർഡ് വർക്ക് ചെയ്യും എത്രകാലം വേണെങ്കിലുമെന്ന് മനസ്സിലുറപ്പിച്ച് മുന്നോട്ട് പോവുക മുന്നോട്ട് പോയിട്ട് നിങ്ങൾക്ക് പറ്റുന്നതുപോലെ നിങ്ങൾ പരിശ്രമിച്ച് പരിശ്രമിച്ച് ലക്ഷ്യത്തിലേയ്ക്ക് എത്താനാണ് ശ്രമിക്കേണ്ടത് ഒരിക്കലും തനിക്ക് കഴിവില്ല അതുകൊണ്ട് ഞാനിനി ചെയ്യുന്നില്ലയെന്നോർത്ത് വിഷമിച്ചിരിക്കാൻ പാടില്ല എന്നാണ് എനിക്ക് നിങ്ങൾക്ക് ആരോടാണെങ്കിലും പറയാനുള്ള ഒരുപദേശം എന്നുപറയുന്നത്